പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് പത്ത് പത്ത് പത്ത് പത്ത് ആയിരത്തി തൊള്ളാ രണ്ടായിരത്തി പത്ത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി നാല് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പത്ത് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട്